നമുക്ക് അറിയാം ഈ സ്പോർട്സ് മേൻ ഷിപ്പ് എന്ന് നമ്മൾ പല അവസരങ്ങളിലും ഉപയോഗിക്കാറുണ്ട് സ്പോർട്സ് മേൻ ഷിപ്പ് നമ്മൾ പറയുന്നത് എന്താണ് ഒരു കാര്യത്തിനോട് നമ്മൾ ചെയ്യു നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പം സ്പോർട്സ് മേൻ ഷിപ്പോടെ ചെയ്യുക ഇപ്പം സ്പോർട്സ്മേൻ്റെ ഷിപ്പാണ് അത് സ്പോർട്സ് മേൻ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ഷിപ്പ് പോലത്തെ ഒരു ഷിപ്പല്ല അത് പറഞ്ഞാൽ അത്രയും ഇപ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ അത്രയും നമ്മുടെ ഹൺഡ്രഡ് പെർസൻറ്റേജ് കൊടുക്കുക കാരണം അതിൽ നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല അപ്പം നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുകയാണ് അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ലലോ അതേപോലെ നമ്മൾ ഹൺഡ്രഡ് പെർസൻറ്റേജ് കൊടുത്ത് ഒരു ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് മേൻ ഷിപ്പോടെ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാര്യമായാലും ഒരു സ്പോർട്സ് മേൻ എന്ന ഒരു രീതിയിൽ അയാൾക്ക് നല്ലൊരു അത്ലെറ്റോ അല്ലെങ്കിൽ നല്ലൊരു സ്പോർട്സ് മേൻ ആവണമെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് അതിൻ്റെ പു പുറകിൽ ഉണ്ടാവണം അപ്പം അങ്ങനെ വളർന്ന് വരുന്ന ഒരു സ്പോർട്സ് മേൻ ആ ആ മൂപ്പർക്ക് കൂടുതലായിട്ടും എന്ത് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ മറ്റുള്ള സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളും മനസിലാക്കാനുള്ള കഴിവുണ്ടാകും അപ്പം സ്പോർട്സ് മേന്മാർ നമ്മുടെ രാജ്യത്ത് കൂടുന്തോറും മറ്റുള്ള രാജ്യത്ത് കൂടുന്തോറും അവരുടെ ചിന്താ ശക്തിയും അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെ മനസ്സിലാക്കാനും പല കാര്യങ്ങൾക്കും അവർക്ക് സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് ഒരു കഴിവുണ്ടാകും അപ്പോൾ സ്പോർട്സ് എന്നത് എല്ലാ രാജ്യത്തും നല്ല എന്താ ഗവൺമെന്റിൻ്റെ സപ്പോർട്ടോടു കൂടി നല്ലൊരു രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്